എന്നോട് ചോദിച്ച ചോദ്യം ഈ വെള്ളപ്പൊക്കം മൂലമുണ്ടാകുന്ന ഗുണങ്ങളും ദോഷങ്ങളും ഏതൊക്കെയാണെന്നാണ് ഞാൻ ആദ്യമേ ഈ വെള്ളപ്പൊക്കത്തിൻ്റെ ദോഷങ്ങളെ കുറിച്ചു പറയാം ഈ ചുറ്റിനും വെള്ളം നിൽക്കുന്നതിലൂടെ വളരെയേറെ രോഗങ്ങൾ പകരാനുള്ള സാഹചര്യങ്ങൾ കൂടുകയാണ് അതുപോലെ തന്നെ നമ്മുടെ വീടുകളിലേക്ക് ഈ പാമ്പ് പഴുതാര അങ്ങനുള്ള ജീവികളെ അതിക്രമം വളരെയേറെ കൂടിവരുന്നു അതായത് നമുക്ക് പണ്ടത്തെ പോലെ പുറത്തിറങ്ങാനോ ഗതാഗത മാർഗങ്ങളെല്ലാം തടസ്സപ്പെടുന്നു പിന്നെ നമുക്ക് ഭക്ഷണ സാധനങ്ങൾ പണ്ടത്തെ പോലെ ശേഖരിക്കാൻ പറ്റാതെ വരുന്നു പിന്നെ ദൂരെ സ്ഥലങ്ങളിൽ ജോലിക്ക് പോയി തിരിച്ച് വീട്ടിൽ വന്നിരിന്നവറിപ്പോൾ ജോലി സ്ഥലത്ത് തന്നെ കിടക്കേണ്ട അവസ്ഥ വരുന്നു കാരണം ഗതാഗതം തടസ്സപ്പെട്ടതു കൊണ്ട് അവർക്ക് അവരുടെ വീടുകളിൽ എത്താൻ പറ്റുന്നില്ല ഈ കൊച്ചു കുട്ടികളുള്ള ഉള്ള വീട്ടുകാർ വളരെയേറെ കഷ്ടപ്പെടുന്നു കാരണം അവരെ കണ്ണൊന്ന് തെറ്റിയാൽ ഇവർ പുറത്തേക്ക് എടുത്ത് ചാടി വെള്ളത്തിൽ പോകാനുള്ള ചാൻസസ് വളരെ കൂടുന്നു പിന്നെ വെള്ളപ്പൊക്കം കൊണ്ടുണ്ടായ ഒരു ചെറിയ ഗുണം എന്നുവച്ചാൽ നമ്മുടെ വീടുകളിൻ്റെ അടുത്ത് തന്നെ നമ്മുടെ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടങ്ങുന്നു അപ്പോൾ ക്യാമ്പിലൂടെ നമുക്ക് നമ്മുടെ വീടിനടുത്തുള്ളവരുവായിട്ടുള്ള ബന്ധം കുറച്ച് കൂടെ സ്ഥാ പിന്നെ കുറച്ച് കൂടെ ശക്തിയാക്കാനും അതായത് നമുക്ക് തന്നെ എന്തേലും പ്രശ്നങ്ങളുണ്ടെൽ പറഞ്ഞ് തീർക്കാനായിട്ടുള്ള ഒരവസരം പോലെ ഈ ഈ എന്ന ഈ ദുരിതാശ്വാസ ക്യാമ്പ് നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാം പറ്റും അതാണ് ഞാൻ നോക്കിയിട്ടുള്ളത് വെള്ളപ്പൊക്കം കൊണ്ടുള്ള ഏക ഒരു ഗുണം എന്നു തോന്നിയത് ബാക്കി ഫുളള് ദോഷങ്ങളാണ്